ഹലോ ഞാനേ ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഇതുവരെയായിട്ടും കിട്ടിയില്ല മാസങ്ങളോളം ആയി നിങ്ങൾ ഇന്ന് വരും നാളെ വരാം എന്നൊക്കെ പറഞ്ഞ് ഏ

ആ കേൾക്കാം എൻ്റെ പേര് തോമസ് ഫിലിപ്പ് ഇന്ന് കൊടുത്ത് വിടുന്നോ

നാലായിരത്തി അറുനൂറ് രൂപയ്ക്കാണ് ആറന്മുള ആ ഞാൻ കുറേ നാളായി വിളിച്ച് ചോദിക്കുന്നു നിങ്ങളുടെ കമ്പനിയിൽ വിളിച്ച് പറയുമ്പോൾ പറയും നാളെ കൊണ്ടുവരും മറ്റന്നാൾ കൊണ്ടുവരും

ഒരു സമയം ദിവസം പറ പിന്നെ ഇവിടെ ഞാൻ ചിലപ്പം കാണില്ലായിരിക്കും പുറത്ത് പോവും ഞാനും പൈസ അയച്ചിയിരുന്നു ഗൂഗിൾ പേ ഇത് ഒത്തിരി ദിവസം ഒത്തിരി ദിവസം ഒത്തിരി ദിവസമായി എന്താണ് അത് ഞാൻ വിളിക്കില്ലേ നിങ്ങൾ വരുന്നത് ചിലപ്പം ഞങ്ങൾ ഇവിടെ കാണില്ല ഞങ്ങൾ എല്ലാവരും പുറത്ത് പോകുമായിരിക്കും അന്നേരം നിങ്ങൾക്കും ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ട് പേയ്മെൻറ് നേരത്തെ കൊടുത്തതാണ് നേരത്തെ ബുക്ക് ചെയ്തപ്പോൾ തന്നെ പേയ്മെൻറ് അടച്ചതാണ് ഞാൻ അല്ലെങ്കിലും ഒത്തിരി നാളായി അതുകൊണ്ടാണ് വി വിളിച്ചതേ